ഹലോ മേരിമാത ട്രാവൽ ഏജൻസിയല്ലേ ഞാനൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊന്നു പുറത്ത് പോകുവാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനിത്രയും ഒരു പത്ത് മണിക്കാണ് അവർ വരാമെന്നു പറഞ്ഞത് പക്ഷെ ഇത്ര നേരമായിട്ടും അവർ വിളിച്ചിട്ടു ഫോണെടുക്കുന്നില്ല ഒരുപാട് നേരംകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് മണിക്കാണ് അയാളുടെ അടുത്ത് ഇന്ന് എൻ്റെ വീടിനുമുമ്പിൽ എത്താൻ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ പത്ത് മുക്കാൽ കഴിഞ്ഞു ഇത്ര നേരമായിട്ടും അയാൾ ഫോണെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങളെന്താ ഒരു സീരിയസ്നസ്സില്ലാതെ ബിഹേവ് ചെയ്യുന്നത് നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവർ അവരെന്തുകൊണ്ടാണ് ഞങ്ങളുടെ കസ്റ്റമറുടെ ഫോണെടുക്കാത്തത് എത്രയോ നേരം കൊണ്ട് വിളിച്ചുനോക്കുകയാണ് കിട്ടുന്നേയില്ല എന്നാൽ പിന്നെ എടുത്തിട്ട് എന്താണ് റീസണെന്നുള്ളത് പറഞ്ഞുകൂടെ എന്നാൽ എനിക്ക് വേറെയാരെയെങ്കിലും ബന്ധപ്പെടാമായിരുന്നു ഇന്നെനിക്ക് എത്രയും പെട്ടന്ന് തന്നെ പത്ത് മുക്കാലായി ഇപ്പം സമയം പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് എനിക്ക് കോഴിക്കോട് എത്താനുള്ളതാണ് ഇനി ഇപ്പം എനിക്ക് വേറെ ഏതെങ്കിലും വണ്ടി ഉപയോഗിച്ച് അവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് എന്തുകൊണ്ടാ നിങ്ങൾ ഫോണെടുക്കാത്തത്